ഹലോ കേരളീയ ഡാന്സ് ഇന്സ്റ്റിറ്റ്യൂട്ട് ഇതാരായിരുന്നു വിളിക്കുന്നത് ആ പറയൂ കേരളീയ കേരളീയ ഡാന്സ് ഇന്സ്റ്റിറ്റ്യൂട്ട് കോട്ടയം കഥകളിയല്ലേ ആഹ് പേരെങ്ങനെയാ രമ്യ വീടെവിടെയാ ആഹ് ഇത് വന്നിട്ട് കോട്ടയം പ്രോപ്പറ് കോട്ടയത്താണ് ഇവിടെ മറ്റേ കഥകളി തിരുവാതിര സിനിമാറ്റിക് ഡാന്സ് എല്ലാ എല്ലാ തരത്തിലുള്ള ഡാന്സ്കള് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കുന്നത് കഥകളിയാണല്ലേ ആണല്ലേ നമുക്ക് കഥകളിക്ക് ഫീസ് വരുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം ഏഴായിരം രൂപയാണ് ഒരു മാസം ഏഴായിരം അത് വീക്കിലി നിങ്ങൾ ഫ്രീയാവുമ്പോൾ വിളിക്കുക നിങ്ങൾ പോരുക അത്ര ഉള്ളൂ ആഹ് നമ്മൾ എപ്പോഴാണേലും നമ്മൾ റെഡിയാണ് നിങ്ങൾ ഫ്രീ ആവുന്നത് എപ്പോഴാണോ അത് പറഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി റെഡിയാ അത് സാധാ സാധാരണയായിട്ടും നമുക്ക് ഒരു വര്ഷം വരെ പോവുന്ന പിള്ളേരുണ്ട് സാധാരണയായിട്ട് നേരത്തെ നമ്മൾ മാക്സിമം പഠിപ്പി പെട്ടന്ന് തന്നെ തീര്ക്കാന് ഉള്ള സെറ്റപ്പിൽ നമ്മൾ വര്ക്ക് ചെയ്യും ആഹ് അത് അത് എല്ലാം അതെല്ലാം നമ്മൾ തരും നിങ്ങൾക്ക് മത്സരത്തിന് പോവുമ്പം നിങ്ങൾക്കെന്തെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ബാക്കി എല്ലാം ചെയ്യും അപ്പം അതിന് എക്സ്ട്രാ എക്സ്ട്രാ എക്സ്ട്രാ പേയ്മെന്റ് കാര്യങ്ങൾ ഒന്നും ഇല്ല ബാക്കി എല്ലാം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും സപ്പോട്ട് ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളെ നോക്കാൻ എപ്പോഴും ഒരാൾ നമ്മുടെ ഇന്സ്റ്റിറ്റ്യൂട്ടിലുണ്ടാവും കോമ്പറ്റീഷന് പോവുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും അത്തരം സപ്പോട്ടിങ്ങ് ആയിട്ടുള്ളൊരു ഇന്സ്റ്റിറ്റ്യൂഷനാണ് ഏഴായിരം രൂപ മന്ത്ലി ഏഴായിരം രൂപ ആഹ് നിങ്ങൾക്ക് താല്പ്പര്യം ഉണ്ടെങ്കില് നിങ്ങൾ വിളിക്കുക ഇവിടെ എല്ലാ തരത്തിലുള്ള ഡാന്സ്കളും പഠിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേറെയുള്ളവര്ക്കാണെങ്കിലും റെഫെറ് ചെയ്ത് കൊടുക്കുന്നതിനും കുഴപ്പം ഇല്ല നമുക്ക് കുഴപ്പം ഇല്ലാത്ത കേസാണ് ഇവിടെ എല്ലാ ആ ആ അങ്ങനെയാണെങ്കിൽ ആഹ് ആഹ് നമ്പറ് കൊടുത്തത് ഞാന് വാട്ട്സപ്പ് ചെയ്യാം ആ ഡീറ്റേയ്ല്സ് ഞാന് വാട്ട്സപ്പ് ചെയ്യാം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന പോലെ നിങ്ങൾ നോക്കുക റേറ്റ് റേറ്റ് എഴായിരം രൂപ മാസം ആഹ് വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ഡാക്റ്റ് ചെയ്യുക നമ്മൾ ബാക്കി പറഞ്ഞ് തരാം താങ്ക് യൂ